ഞാൻ അസാ ഒരു ചെടി ഒരു തൈ നടുമ്പം തന്നെ ദിവ് അതിൻ്റെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഓടുന്നത് ആ തൈ ചെടിയുടെ അടുത്തേക്ക് ആയിരിക്കും അതായത് അതിനെന്താണ് അത് രാവിലെ അത് വളർന്നോ അതിന് ഇല വന്നോ അല്ലെങ്കിൽ അത് അതിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനാണ് രാവിലെ എണീറ്റാൽ തന്നെ ഇത് നിരീക്ഷിക്കലാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് തന്നെ അതായത് രണ്ട് നേരം അതിന് വെളളം ഒഴിച്ച് കൊടുക്കുക വളങ്ങളും കാര്യങ്ങളും കൊടുക്കുക അതിൻ്റെ ഓരോരോ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ ചെറിയ കുട്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ ആ ചെടികളേയും പരിപാലിച്ചുകൊണ്ട് വരുന്നത് അപ്പം തന്നെ അത് ഒരു ദിവസം അതിൻ്റെ ഇലകൾ വരുകയും തഴച്ച് വളരുകയും അത് നല്ല പച്ചപ്പിൽ നിൽക്കും പിന്നെ അതിന് മൊട്ടുണ്ടാവും മൊട്ട് വയ്ക്കും പിന്നെ ആ മൊട്ട് വിടർന്ന് പൂവ് ആവും ഈ പൂവ് ഇങ്ങനെ പുഷ്പിച്ച് കാണുമ്പോൾ അതുമാതിരി തന്നെ ആ മരങ്ങളിങ്ങനെ വലുതായി ഇങ്ങനെ ഫുൾ ഇലകളും പൂക്കളളും കൊണ്ട് മൂടി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിനത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ് നമുക്ക് ലഭിക്കുന്നത് അത്രയും അതിന് അതിനേക്കാളും വലിയൊരു സന്തോഷം ഇല്ല എന്നുതന്നെ പറയാം നമ്മൾ എത്ര സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളത് കാണുമ്പോഴുള്ള ആ നം നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും പരിപാലിച്ച് വന്ന ആ ചെടികളും ആ ചെ മരങ്ങളും നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ എല്ലാം മറക്കും എന്നുതന്നെ പറയാം എല്ലാം മതിമറന്നുതന്നെ ഇരിക്കും കാരണം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ കുഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് എങ്ങനെയാണോ വളർന്ന് അത് നടക്കുന്നു ഓടുന്നു സംസാരിക്കുന്നു ആ കുഞ്ഞിൻ്റെ വളർച്ചയെ നമ്മൾ എങ്ങനെ ആസ്വദിക്കുന്നു അതെപോലെ തന്നെയാണ് ഞാൻ എൻ്റെ തോട്ടത്തിലുള്ള ചെടികളേയും മരങ്ങളേയും അതിൻ്റെ ഓരോ വളർച്ചയേയും അതിൻ്റെ ഓരോ മാറ്റങ്ങളേയും അതിനെ കാണുന്നതും അത് അതിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുന്നതും സ്വന്തം കുട്ടി എങ്ങനെ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്ന് പോകുന്നത് അതുപോലെ തന്നെയാണ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ കിട്ടാറുള്ളത് നമ്മൾ ഇത്രയും നാളത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം അത് അങ്ങനെ നിൽക്കുന്നത് അല്ലേ അപ്പം അത് തന്നെ എല്ലാ എനിക്ക് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു കുഞ്ഞു ചെടി തൈ അത് വളർന്ന് തഴച്ച് വളർന്ന് ഒരു മരമായി മാറുന്നു അതിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നു ഇതൊക്കെ കാണുമ്പം നമ്മൾ പൈസ ഒരു കോടി രൂപ നമുക്ക് തന്നാലും കിട്ടാത്തത്ര സന്തോഷമാണ് ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്